നമുക്കിപ്പോൾ മറ്റു ഭാഷകളുമായിട്ട് മലയാള ഭാഷയെ താരതമ്യം ചെയ്യാമോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഷ മാതൃഭാഷ നമുക്കതാണ് ഏറ്റവും വലുത് പക്ഷെ ഇപ്പോൾ മറ്റു ഭാഷകളായിട്ട് താരതമ്യം ചെയ്യാനാണെങ്കിൽ കൂടുതലും നമുക്കിപ്പോൾ മലയാളികളാണെങ്കിലും ഹിന്ദിക്കാരാണെങ്കിലും കന്നടക്കാരാണെങ്കിലും തെലുങ്ക്കാരാണെങ്കിലും കൂടുതലും അതായത് അവരുടെ ഭാഷയെ അപേക്ഷിച്ച് പഠിക്കാൻ കൂടുതലും ശ്രമിക്കുന്ന ഒരു ഭാഷയെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ് നമുക്കിപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എവിടെയും തലയുയർത്തി നിൽക്കുന്നൊരു ഭാഷ തന്നെയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പം മലയാളികൾ ഇപ്പം കന്നട പഠിപ്പിക്കുക പഠിക്കണമെന്നില്ല ഹിന്ദി പഠിക്കണമെന്നില്ല പക്ഷെ ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് അതായത് നമുക്കിപ്പോൾ പുറമെ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ നമ്മൾ ഹിന്ദി ഇംഗ്ലീഷ് അങ്ങനെയൊന്നും അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് അറിയാണെ അല്ല ഹിന്ദി തെലുങ്ക് കന്നട അങ്ങനൊന്നും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് അറിയുകയാണെങ്കിൽ നമുക്കവിടെ പിടിച്ച് നിൽക്കാൻ പറ്റും അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഇംഗ്ലീഷ് പഠിക്കാനാണ് കൂടുതലും ശ്രമിക്കുന്നത് ഇപ്പോൾ നാലാൾ കാ നിൽക്കുമ്പം നമ്മളാണെങ്കിൽ ഇപ്പം മലയാളത്തെക്കാളും അതായത് ഇടകലർത്തി ഇംഗ്ലീഷ് സംസാരിക്കാനാണ് കൂടുതൽ ശ്രമിക്കുക അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാതൃഭാഷ എല്ലാവരും മറന്ന് തുടങ്ങുക ആണെന്നാണ് എൻറ്റൊരു പിന്നെ എൻറ്റൊരു നിഗമനം പറയാനാണെങ്കിൽ